അതെ ആരായിരുന്നു വിളിക്കുന്നത് ആ ആ എന്തായിരുന്നു വിളിച്ചത് ആ ഹാ ആ ഹാ ഹാ ഹാ ആ ആ ഇവിടെ തട്ടേക്കാട് നമുക്ക് നല്ലൊരു നല്ലൊരു വന്യജീവി സങ്കേതം ഉണ്ട് അവിടെ നമുക്ക് അത്യാവശ്യം മാൻ അങ്ങ

പാമ്പ് എല്ലാം അങ്ങനെ ആ ഇടയ്ക്ക് കട്ട് ആയി പോയതാണ് പിന്നെ നമുക്ക് ഈ കോടനാട് മലയാറ്റൂർ പോകുന്ന വഴിക്ക് കോടനാട് ഇല്ലേ കോടനാട് ആ മലയാറ്റൂർ പോവുന്ന വഴിക്ക് കോടനാട് ആ ആന ആനകളുടെ ഒരു എന്ത് ഒരിതുണ്ട് അവിടെ കുറേ ആനകളുണ്ട് കുഞ്ഞി ആനകളും ഉണ്ട് അവിടെ ശരിക്കും നമുക്ക് നന്നായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്ഥലമാണ് എന്നാ ഒത്തിരി ആനകളുണ്ട് തന്നെയല്ല നമുക്ക് ആനക്കൂട്ടത്തെ ഒക്കെ കണ്ട് എന്നിട്ട് അവിടെ പുഴ ഉണ്ടല്ലോ താഴെ പുഴയുണ്ട് മലയാറ്റൂർ പുഴയിൽ പോവാം അപ്പോൾ കുറച്ചുകൂടി നല്ല നല്ലൊരു പ്ലേസ് ആണ് പിന്നെ നമുക്ക് കോതമംഗലം അവിടെ ഭൂതത്താൻ കെട്ടുണ്ട് അത് വന്യജീവി സങ്കേതം അല്ല കേട്ടോ ആ അവിടെ ആ ആ ഈ കാട്ടിലുള്ള ജീവികളൊക്കെ ഈ ഭൂതത്താൻ കെട്ടിൽ കൂടെ പോവുമ്പോൾ കുറേ നമുക്ക് കാണാൻ പറ്റും ആ ഹാ ഹാ ആ ത് തേ തേക്കടിയിലും ഉണ്ട് തേക്കടിയിൽ ഇതുപോലെ തന്നെ അവിടെ വ വന്യമൃഗ സങ്കേതമുണ്ട് അപ്പോൾ അവിടെ അവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ അവിടുത്തെ യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അവിടെ ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ഒരു അപകടം നടന്നിട്ടുണ്ട് ആ അപ്പം ബോട്ട് വലിയ ബോട്ട് ദുരന്തം ഒക്കെ ഉണ്ടായതാണ് അപ്പോൾ കുറച്ച് സൂക്ഷിക്കണമെന്നേ ഉള്ളൂ പക്ഷേ അവിടെ അവിടെ നല്ലതാണ് അവിടെ പോയാൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ആ ഇപ്പോൾ ഇപ്പം മ മഴക്കാലം അല്ലേ അപ്പോൾ അവിടെ ആ കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ അവിടെത്തന്നെ ഒന്ന് വിളിച്ച് ചോദിക്കണം മഴക്കാലത്ത് കുറ ഇത്തിരി സുരക്ഷ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എങ്കിലും മഴ കുറഞ്ഞിരിക്കുന്ന ദിവസങ്ങളിൽ അവിടെ പോയാൽ കുഴപ്പം ഒന്നുമില്ല ആ ഓക്കെ ഓക്കെ ഇനി എന്തെങ്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി വിളിച്ചാൽ മതി